ഹലോ ആ ചേട്ടാ ഒരു ക്യാബ് നിങ്ങളുടെ ക്യാബ് ബുക്ക് ചെയ്തിരുന്നു ഒമ്പത് മണിക്കെത്താൻ വേണ്ടിയിട്ട് അതെ എൻ്റെ പേര് രാജേഷ് ആ മാത്തൂര് ഒമ്പത് മണിക്കെത്താൻ വേണ്ടീട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ സമയം ഒമ്പത് കാലായി

എനിക്കത്യാവശ്യമായിട്ട് പത്ത് മണിയാകുമ്പോൾ പാലക്കാടെത്തേണ്ടതാണ് നിങ്ങളെന്താണിത്ര ലേറ്റാവുന്നത് നിങ്ങള് കുറച്ചുകൂടി ഒരുത്തരവാദിത്തം കാണിക്കണം കാരണം ഞാൻ അതുകൊണ്ടാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തു വെച്ചത് ഒമ്പതു മണിക്ക് കൃത്യം ഒമ്പതു മണിക്ക് എത്തണം പറഞ്ഞിട്ട് കൃത്യമായിട്ട് ബുക്ക് ചെയ്ത് വെച്ചതതാണ് അതെ എനിക്ക് പത്ത് മണിക്ക് പാലക്കാടൊരു ഇൻ്റവ്യൂ ഉള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ക്യാബ് മുൻകൂട്ടിത്തന്നെ ബുക്ക് ചെയ്തു വെച്ചത് സമയത്തെത്തണമെന്ന് വെച്ചിട്ട് ഇല്ലെങ്കിലെനിക്ക് വേറെ വഴി നോക്കാമായിരുന്നു അതെ നിങ്ങളിപ്പോൾ എന്താ ലേറ്റാവണതെന്താണ് ഓ ട്രാഫിക് ബ്ലോക്ക് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു വഴിയിൽക്കൂടെ വരാൻ ശ്രമിച്ചുകൂടേ അത്യാവശ്യമായതുകൊണ്ടാണ് ചേട്ടാ ഇല്ലെങ്കിൽപ്പിന്നെ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളിനെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അതെ മാത്തൂരാണ് സ്ഥലം ഇത് കൊഴൽമന്നം വഴി വന്നാൽ പെട്ടന്ന് എത്താവുന്നതാണ് അതെ നിങ്ങളിപ്പോൾ എവിടെയെത്തി ടൗണിൽനിന്നു വന്നിട്ടില്ലേ നിങ്ങൾ ഏതെങ്കിലും എളുപ്പമുള്ള വഴിയിൽക്കൂടെ ഒന്ന് മാറി വന്നുകൂടെ പെട്ടെന്നെത്താമല്ലോ അതെ എനിക്ക് പത്തുമണിക്ക് കൃത്യം പത്തുമണിക്ക് പാലക്കാട് ഒരു ഓഫീസിലെത്തേണ്ടതാണ് പ്രധാനപ്പെട്ട ഇൻൻ്റവ്യൂ ഉണ്ട് നിങ്ങളെങ്ങനെയെങ്കിലും ഒരു പതിനഞ്ച് മിനുറ്റിന്റെയുള്ളിൽ വരണം കാരണം ഇവിടെനിന്നു മുപ്പത് മിനുറ്റെങ്കിലും വേണം ടൗണിലെത്താൻ ആ നിങ്ങള് വേഗം വരാൻ നോക്ക്